സാങ്കേതികവിദ്യ ബാങ്കിംഗ് സേവനം വളരെ അധികം എളുപ്പാക്കി എന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് പിന്നെ കുറച്ച് പ്രായമായവർക്ക് അത് കുറച്ച് ആശയകുഴപ്പങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ഇന്ന് ഒരുപാട് എല്ലാവരും കൂടുതലും ഗൂഗിൾ പേയും ഫോൺപേയും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് കാരണം ഏതെങ്കിലും ഒരു കടയിൽ ചെന്നാലും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പേയ്മെൻ്റുകൾ നടത്താൻ പറ്റുന്നത് ഈ ഗൂഗിൾ പേയും ഫോൺപേയും ഉള്ളത് വഴിയാണ് അത്കൊണ്ട് സാങ്കേതിക വിദ്യ ബാങ്കിംഗ് സേവനം എളുപ്പമാക്കി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം മനുഷ്യൻ്റെ ഇടപെടലുകൾ കുറയുന്നത് ജോലിക്കാർക്കും ഒരു വലിയ ഭാരം ബാങ്കിൽ ഇരിക്കുന്നവർക്കും ഒരു ഭാരം ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അതുമല്ല കൂടുതൽ ആൾക്കാർ ബാങ്കിംഗ് ഉപയോഗിക്കുന്നുണ്ട് പണ്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉപയോഗിച്ചിരുന്നത് വളരെ കുറവ് ആൾക്കാരാണ് പക്ഷെ ഇന്ന് കൂടുതൽ ആൾക്കാർ ഈ ബാങ്കിങിലോട്ട് കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് ഈ സാങ്കേതികവിദ്യ ബാങ്കിംഗ് മേഖലയെ കൂടുതൽ കൂടുതൽ എളുപ്പമാക്കി എന്നേ എനിക്ക് പറയാനുള്ളൂ